മലമൂത്ര വിസർജനം അതിനെ കുറിച്ചു പറയാനാണെങ്കിൽ വളരെ ദോഷമാണ് കാരണം കിണറുകൾ ഉള്ള ഇടത്തായിരിക്കും ചിലപ്പം ഒരു എന്താണ് പറയുക കക്കൂസ് ടാങ്ക് ഉണ്ടാവുന്നത് അതിൽ നമ്മൾ അതും ഇതും മീൻസ് രണ്ടും ഭൂമിൻ്റെ ഉള്ളിലേക്ക് തന്നെയാണല്ലോ വരുന്നത് ഈവൺ എന്തായാലും കക്കൂസ് ടാങ്ക് എന്നുള്ളത് അതൊന്നും അടുത്ത് കിണറിൻ്റെ അടുത്തൊന്നും വച്ചു പോവേണ്ടത് അല്ല പിന്നെ മലമൂത്ര വിസർജനമൊക്കെ തുറസായ സ്ഥലങ്ങളിൽ നടന്നു പോകുമ്പോൾ അതൊക്കെ ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് കാരണം ഇപ്പോൾ മഴവെള്ളം ഒരു മലമൂത്ര വിസർജനം നടന്നു കഴിഞ്ഞു കുറച്ചു കഴിഞ്ഞു മഴ പെയ്തു മഴ പെയ്തു എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചിലപ്പം ആ മഴ പെയ്തതൊലിച്ചു വന്നു ഒരു ചിലപ്പം തോട്ടിലേക്കോ കുളത്തിലേക്കോ ആയിരിക്കാം ചിലപ്പം വന്നു ചാടുന്നത് ആ വെള്ളം ആ വെള്ളത്തിലായിരിക്കാം അടുത്ത ദിവസം ഒരാൾ അലക്കാൻ വരികയോ അല്ലെങ്കിൽ പാത്രം കഴുകാൻ വേണ്ടി വെള്ളം എടുക്കുകയോ അങ്ങനെ ഒക്കെ ചെയ്യുന്നത് ഇതെല്ലാം കൊണ്ടും ഒരു വ്യക്തിക്ക് അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉളവാക്കുന്നത് തന്നെയാണ് ഇതൊക്കെ ഭയങ്കരം എന്താണ് പറയുക ഭയങ്കര മോശമായ കാര്യങ്ങളാണ് അതുമാത്രമല്ല ഇതൊക്കെ അതിനെ കൊണ്ടുള്ള ദോഷം അതിൻ്റെ ദോഷ വശങ്ങൾ തന്നെ വളരെ അധികമാണ് ഓരോ ഓരോ അസുഖങ്ങൾ ഇപ്പോൾ ഒട്ടനവധി അസുഖങ്ങൾ നമ്മൾക്ക് അറിയാം എല്ലാം പെട്ടെന്ന് തന്നെയാണ് പിടി വരുന്നത് ദോഷ വശങ്ങൾ തന്നെയാണ് കൂടുതലായിട്ടും കാണാൻ പറ്റുന്നത്